ഹലോ ഹലോ ആ എങ്ങനെ എങ്ങനെ ആയിരുന്നു പേര് എങ്ങനെ ആയിരുന്നു ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഒരാഴ്ച്ചയായി വല്ല ക്ലിനിക്കിലും കാണിച്ചായിരുന്നോ കാണിച്ചില്ല ഇതിലേതാ അണപ്പല്ലാണോ അല്ലേൽ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒക്കെയാണോ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഇതിന് മുൻപ് പല്ല് ക്ലീൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നോ ക്ലിനിക്കിൽ പോയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ ഒരുപക്ഷേ വേറെ പല്ല് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ പല്ലിന് കേടുവന്നതായിരിക്കും കേടുള്ള പല്ല് വല്ലതും നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ പിന്നെ വേറെ പല്ലു വരുന്നതാണ് ആ വേറെ പല്ലു വരുന്നതാണ് ആ നിങ്ങൾ വീട് എവിടെയായിട്ടായിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നു വൈകുന്നേരം ഒന്ന് ക്ലിനിക്കിലേക്ക് വരാൻ പറ്റുമോ മാനന്തവാടിയായിട്ടാണ് അപ്പോൾ ടൈമ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ആ ടൈം ആകുമ്പോളേക്ക് എന്നാൽ നിങ്ങൾ പോകുക നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിങ്ങു വരിക ബാക്കി ഇവിടെ വന്നിട്ട് വേറെ കുഴപ്പം ഒന്നും ഉണ്ടാകില്ല പിന്നെ കേടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല്ല് വരുന്നത് ആണ് അതിനുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം വേറെ മെഡിസിനൊന്നും കഴിച്ചിട്ടില്ലല്ലോ

അപ്പം എന്നാൽ ശരി വൈകുന്നേരം ആകുമ്പോളേക്കും